പ്രധാനമായിട്ടും കാപ്പയും തേയിലും കൃഷി ചെയ്യാനായിട്ട് െരഞ്ഞെടുക്കുന്ന പ്രദേശങ്ങളാണ് ഉയർന്ന പ്രദേശങ്ങളും ചരിഞ്ഞപ്പൂ പ്രദേശങ്ങളും പക്ഷെ ഇതുവഴി ഇവരെ നേരിടുന്ന വെല്ലുവിളികള് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മണ്ണിടിച്ചില് അത് വല്ിയൊരു വെല്ലുവിളിയാണ് മണ്ണിടിച്ചില്ലന്ന് വെച്ചാ ഇപ്പോ മലമുകളിലാണെങ്കി അത്രേയും ഭാഗത്ത് നീ എത്രയും ഹൈറ്റിലാണ മണ്ണ ഇണ്ടിഞ്ഞ് വരന്നത് അത്രേയും ഹൈറ്റില് ഉമ്മി കൃഷി ചെയ്തിച്ചിരിക്കുന്ന തേനേയും കാപ്പം ഇടിഞ്ഞ് വീഴുന്നാണ് അതുവഴി ഇവർക്കത്രയും നാശനഷ്ടം സംഭവിക്കണോണ് അതുപോലെ തന്നെ നയർന്ന പ്ര പ്രദേശങ്ങളില് ചെയ്യുമ്പോുള്ള പ്രശ്നൾ എന്ന് പറയാ മണ്ണ ഉൽിച്ചിലും കാര്യങ്ങളൊക്കെ ഇണ്ടാവും അത് മൂന്നാറ് ഊട്ടി അങ്ങനെ പ്ര അങ്ങനെ കൊറച്ചൂടി ക്ലൈമറ്റ് അതായത് തണുപ്പ് ഉിലേക്കണ പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് അതുപോലെ തന്നെ മണ്ണൊൽിച്ചിലും മണ്ണിടിച്ചിലൊക്കെ വന്ന് കഴിഞ്ഞാല് അവർക്ക ഇത കൊൊണ്ട് പല രീതിയിലുള്ള കോൺസിക്വൻസസ് ഇണ്ടാവും പല രീതിയിലുള്ള നാശനഷ്ടങ്ങുണ്ടാവും അതുപോലെ തന്നെ ഇര് തട്ടൊരുക്കണത് അതായത് നെലമൊരുക്കുക നെലമൊരുക്കണത് തട്ട് തട്ടായിട്ടാണ് അതായത് ചരി ഒരു ചെറിയ ഒരു ചരിപോട കൂടി തട്ട് തട്ടായിട്ടാണ് ക്രമീകരരിക്കണം എന്ന് വെച്ചഴഞ്ഞാ അവിടെ നിന്ന് ജോലിയം ചെയ്യാൻ പറ്റും എന്നാ അതിനൊരു ഭംഗിയമ ഇണ്ടാവും അത് തന്നണ ഈ മൂന്നാറും കുഊട്ടിലക്കെ മറ്റുള്ളവരാ ആകർഷിക്കണ ഏറ്റവും വലിയ കാര്യങ്ങള് ടൂറിസ്റ്റുകളടേക്കെ ആ ആകർഷിക്കണ ഏറ്റവും വലയ കാര്യങ്ങള് അവിടുത്തെ കാപ്പിത്തോട്ടോ തേയിലത്തോട്ടോക്കെയാണ് വരണ ടൂറിസ്റ്റുകളെ ആകർഷിക്കണത് അതുോൽ തന്നെ വണ്ടി ഇത് കടത്താനായിട്ട് ഉപയോഗിക്കണ അതായത് ഈ തേയിലം കാപ്പിയക്കെ വെട്ടി സെറ്റാക്കിട്ട് കടത്താനായിട്ട് ഉപയോഗിക്കണത് ഫോർ വീലർ വണ്ടികളാണ് അതായത് ട്രക്കിങ് ജീപ്പും കാര്യങ്ങളൊക്കെ ഇണ്ടാവും ചരഞ്ഞ പ്രദേശം കാര്യങ്ങളൊക്കെ ആകുമ്പോ അങ്ങടേക്ക് നമ്മടെ സാധാരണ വണ്ടി പോവത്തില്ല അതുകൊണ്ട് അവിടേക്ക് മാത്രമായിട്ട് ഫോർ വീലർ ട്രക്കിംഗ് ജീപ്പുകളുണ്ടാവും അ സാധാരണ നമ്മ റൈഡിനൊക്കെ പോ പോലത്തെ ജീപ്പുകളുംണ്ടാവും അതാണ് കൂടുതലും യൂസ് ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് സാധാരണ പ്രദേശം വരുമ്പോഴാണ് അതായത് സാധാരണ പ്രദേശം വരുമ്പ ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടണ്ട്ോണം സെറ്റ് ചെയ്തക്ക അതിന് വേണ്ടീട്ട് നമ്മ സാധാരണ വാഹനം ഉപയോഗിക്കും പിന്നെ കാപ്പീൻ്റെയിലം കൃഷി ചെയ്യുന്നതിലൂടെ എന്താ വെല്ലുവിളി ഏറ്റവും വല്യ വെല്ലുവിളിയാണ് ഈ പറഞ്ഞ പോലെ അവർക്ക്ുണ്ടാവുന്ന നാശനഷ്ടങ്ങള് ഇത് ശരന പ്രദേശത്ത് നിക്കുമ്പോ അതിൻ്റേതായ രീതിക്ക് നമ്മ വെട്ടി സെറ്റാക്കി കൊണ്ട്ോന്നില്ലെങ്കി അയിതിൻ്റെേതായ പ്രശ്നങ്ങള് ഇണ്ടാവും അതുപോലെ തന്നെ പിന്നെയള്ള വെല്ലുവിളിന്ന് വെച്ച് കഴിഞ്ഞാ മണ്ണിടിച്ചില് വന്ന കഴിഞ്ഞാ ഫുൊലച്ച് ഇങ്ങനെ പോകവും അതുപോലെ തന്നെ അത്രയും കഷ്ടപ്പെട്ട തൊഴിലാളികൾക്കും എക്കെ പ്രശ്നങ്ങള് വരാൻ ചാനിച്ചണ്ട് അതുപോലെ തന്നെയാണ് മണ്ണിടിച്ചില് വരുമ്പഴും അത്രേയും ഭാഗം ഇടിഞ്ു പോണീാണ് അപ്പ അവർക്ക അത്രേയും ഭാഗത്ത് കാപ്പീം തേയിലായിയിട്ടുള്ള തേയിലക്ക് കാപ്പിയം കിട്ടണ്ട റെവന്യൂ ഇല്ലാണ്ടാവീന് ഇതിങ്ങനെ ചെയ്യണോണ്ട് അതിൻ്റേതായ നല്ല വിെഷമുണ്ട് ജീവിത്ത വിഷമണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളായിട്ടാണ് ഞാൻ പറഞ്ഞത് ജീപ്പും അതുപോലെ ഫോർ വീലർ ട്രക്കിങ്ങ് വാഹനങ്ങളുണ്ട് അങ്ങനത്തെ മേഖലകളിലേക്ക് പോവാൻ പറ്റും അതിനാത്താണ് ഇവര് സപ്ലൈയും കാര്യങ്ങളും നടത്തണത്